ആ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭജന ഗായകൻ കെ ജെ യേശുദാസ് അദ്ദേഹം പാരമ്പര്യമായിട്ട് ഒരു സംഗീത കുടുംബത്തിൽ ജനിച്ച് വളർന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ പിതാവ് നല്ല ഒരു സംഗീതജ്ഞനായിരുന്നു കെ ജെ ജോസഫ് അദ്ദേഹത്തിൻ്റെ മകനാണ് കെ ജെ യേശുദാസ് യേശുദാസ് ഒരുപാട് ഭജനകള് പാടിയിട്ടുണ്ട് നല്ലെയൊരു ഗായകനാണ് നമ്മുടെ ലോകമെമ്പാടുമുള്ള ആളുകള് ഏറ്റെടുത്ത ഒരു ഗായകനാണ് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൻ്റെ അഭിമാ ലോകത്തിൻ്റെ ഇന്ത്യയുടെ അഭിമാനമെന്ന് തന്നെ പറയാം ന്ന ഒരു വ്യക്തിയാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ ഹരിവരാസനം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഇതാണ് ഹരിവരാസനം ഒരുപാട് ഭജനകള് സംഗീതങ്ങള് സംഗീതങ്ങള് ഒക്കെ അദ്ദേഹം ചിട്ടപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹമാലപിച്ചിട്ടുണ്ട് അതൊക്കെ പിന്നെ ഒരുപാട് ഗായകര് ഗസലിൻ്റെ ആളുകള് കർണാട്ടിക് മ്യൂസിക് അങ്ങനുള്ള മിസീഷ്യന്മാരെ കൊണ്ടു നിറഞ്ഞ ഒരു രാജ്യമാണ് നമ്മുടെ ഭാരതം എന്നുപറയുന്നത് അപ്പോള് നമുക്ക് എല്ലാവരുടെയും ഒന്നും പേരറിയില്ല എങ്കിലും അതൊക്കെ നമ്മള് ആസ്വദിക്കാറുണ്ട് നമ്മള് നമുക്ക് പാടാനുള്ള കഴിവ് ഇല്ലെങ്കിലും നമ്മള് ഇതൊക്കെ ആസ്വദിക്കാറുണ്ട് അവര് അതിനെ നമ്മളാദരിക്കാറുണ്ട് യേശുദാസിൻ്റെ ഒക്കെ ഒരു ഗാനമേള ഒക്കെ കേള്ക്കാൻ നമ്മളൊരുപാടാഗ്രഹിക്കുന്നുണ്ട് അടുത്ത സമയം ആ കാലങ്ങൾ അടുത്ത നമ്മുടെ സ്ഥലങ്ങളിലൊക്കെ വരുമ്പോള് നമുക്കത് കേൾക്കാന് നമ്മള് താല്പര്യം പ്രകടിപ്പിക്കാറുണ്ട് സാഹചര്യമൊത്തു വന്നാല് നമ്മള് പോവാറുണ്ട് പിന്നെ പണ്ടൊക്കെ റേഡിയോയിലാണെങ്കിലും ഇപ്പോള് ടി വികളിലാണെങ്കിലും ഇപ്പോള് ഒരുപാട് ദൃശ്യമാധ്യമങ്ങള് ഇന്ന് നമുക്കുണ്ട് അപ്പോള് ടെക്നോളജി ഒത്തിരി വളർന്നതുകൊണ്ട് നമുക്ക് വീട്ടിലിരുന്ന് ഇതൊക്കെ കേൾക്കാനുള്ള ഒരു ഭാഗ്യവും ഇന്ന് നമുക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പോള് ഇങ്ങനെ നമ്മുടെ ഇഷ്ടപ്പെട്ട ഗായകര് അതേത് മ്യൂസിക്കാണെങ്കിലും ഏതു ഭാഷയാണെങ്കിലും ഒക്കെ നമ്മളതിനെ അവരെ ആദരിക്കുന്നു നമുക്ക് അവരോട് ഒരുപാട് സ്നേഹവും ബഹുമാനവുമുണ്ട്